ഹലോ ആരാ ആ അതെ ആരാണ് ആണോ ഏത് സമയം ഓ ഫുഡ് കഴിക്കാൻ നേരത്താണ് ഇവിടൊന്നും ഞാൻ കണ്ടില്ല ഇത്രയും നേരമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടൊന്നും കണ്ടില്ല കളർ എന്താണ് ബാഗിൻ്റെ കളർ എന്താണ് അയ്യോ ഇത്രയും നേരമായിട്ടൊന്നും കണ്ടില്ല ഇവിടെ അതിൻറ്റ ആ അതിൻ്റെ ആ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൂക്ഷിക്കേണ്ടേ കഴിക്കാൻ പോകുന്ന കഴിക്കാൻ പോകുന്ന സ്ഥലത്തൊന്ന് മാറ്റി വെക്കാമല്ലൊ അതൊക്കെ ആണോ ഞാനിവിടെ കണ്ടില്ല കണ്ടാൽ ഞാനെടുത്തു വെക്കാം എന്തായാലും ആ നോക്കാം ആ സി സി ആ സി സി ടി വി ഏത് റൂമിലാണ് മറന്നു വെച്ചിട്ടു പോയത് ആ റൂമിലാണ് അവിടെ സി സി ടി വി ക്യാമറ ഇല്ലല്ലോ അവിടെയോ ഞാൻ സി സി ടി വി കണ്ടിട്ട് നിങ്ങളോട് ഞാൻ വിളിക്കാം എന്നിട്ട് പറയാം വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതിനടുത്ത് ഫയൽ അ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒന്ന് കംപ്ലെയിന്റ് ചെയ്ത് നോക്കിക്കേ പേഴ്സൊക്കെ ഉണ്ടെന്ന് അല്ലേ പറയുന്നത് ആണോ എന്നാൽ ശരി ഞാൻ നോക്കിയിട്ട് പറയാം ആ പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ആ ഞാൻ ചോദിക്കാം ഞാൻ അങ്ങോട്ട് പോയില്ല ഞാൻ പോയാൽ കണ്ടാൽ ഞാൻ എടുത്തു വെക്കാം ഇല്ലെങ്കിൽ ഞാൻ അനൌൺസ് ചെയ്യാം ആ ശരി ആ ആ പറഞ്ഞോ ആ ഞാൻ ചോദിച്ച് നോക്കാം ആ ഇപ്പം പിന്നെ ആ ഇപ്പം അവർ കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ അവർ വന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കാം ആ ആ ഞാൻ നോക്കി ചെക്ക് ചെയ്യാം അവരൊക്കെ ചെക്ക് ചെയ്യാം ആണോ ഏത് സമയത്താണ് നോക്കി ബാഗ് കാണുന്നില്ലെന്ന് ഏത് സമയത്തിലാണ് നോക്കിയത് ആ വണ്ടിക്കകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാവോ വണ്ടിക്കകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാവോ വണ്ടിക്കകത്ത് എന്തെങ്കിലും ആണോ എന്നാൽ ഞാൻ നോക്കിയിട്ട് പറയാം നമുക്ക് ഇല്ലെങ്കിൽ അനൌൺസ് ചെയ്യാം ആ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ആ ആ ഞാൻ നോക്കിയിട്ട് പറയാം